പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി മൂന്ന് എട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി മൂന്ന് പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി ആറ് പതിമൂന്ന് എട്ട് രണ്ടായിരം പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ്